ഇപ്പോൾ നമ്മൾക്ക് പല രീതിയിലുള്ള ചികിത്സ സംവിധാങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെയാണെങ്കിലും ലഭ്യമാണ് ഇപ്പോൾ ക്യാൻസറിന് പല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് വൈദ്യപരമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് അപ്പോൾ ചിലപ്പോൾ അത് ചിലവരുടെ ശരീരത്തിൽ പിടിക്കും ചിലവരുടെ ശരീരത്തിൽ പിടിക്കില്ല അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ നമ്മുടെ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക വൈദ്യസഹായം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആയുർവേദം അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക കാരണമെന്തെന്നു വച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ആയുർവേദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൻപുറത്തു കിട്ടുന്ന ചെടികളും കാര്യങ്ങളൊക്കെ അരച്ച് പിഴിഞ്ഞ് അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ആയുർവേദത്തിൽ വരുന്നത് മറ്റേത് ഇംഗ്ലീഷ് മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനു നല്ല രീതിയിലുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നേയെന്നു പറഞ്ഞാൽ രോഗം പെട്ടെന്ന് മാറണമെങ്കിൽ നമ്മൾ കുടുതലായിട്ടും ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ് കൂടുതലായിട്ടും കഴിക്കേണ്ടത് അപ്പം ഇപ്പം ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും പാരസെറ്റാമോളും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുക അല്ലാണ്ട് പോയിട്ട് ആയുർവേദം മരുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുടിക്കില്ല അപ്പം നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനേയും വേണമെങ്കിൽ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ചിലപ്പം കുറച്ച് താമസം ഉണ്ടെങ്കിലും വേറെ വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾക്ക് അസുഖം മാറാനും അത് സാധ്യമാവും